ഇപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിന് ആഗ്രഹിക്കിന്നു അതിനാൽ വീടുകളിൽ ശൂന്യമായി കിടക്കുന്ന പഴയ സാധനങ്ങൾ പെറുക്കിയെടുത്ത് വിറ്റ് കിട്ടുന്ന പൈസ ഞങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനാൽ സാധനങ്ങളും സാധനങ്ങൾ ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതിന് വേണ്ടി നിങ്ങളുടെ ഉപയോഗിച്ച് ശൂന്യമായ കംപ്യൂട്ടറുകളോ പാത്രങ്ങളോ കുപ്പി മുതലായ എല്ലാ പ്ലാസ്റ്റിക്ക് ഉപയോഗങ്ങളും ഞങ്ങൾ ശേഖരിക്കുന്നതാണ് അപ്പോൾ മറ്റു വസ്ത്രങ്ങൾ ആയിരുന്നാലും ഞങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ അത് പെറുക്കിയെടുത്ത് വിറ്റ് കിട്ടുന്ന പൈസ ചാരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഓരോ യൂണിറ്റ്ന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹക്കുന്നു എല്ലാ യൂണിറ്റിൻറ്റേയും നേതൃത്വം നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോളായില്ലേ ഓരോ യൂണിറ്റും നമ്മൾക്ക് വേണ്ടി അതിനുള്ള പരിപാടികൾ ഭാരവാഹിത്തമായി തീരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചാരിറ്റിയുടെ ഓരോ രൂപയും ഞങ്ങൾ വേണ്ടി നിർധനരായ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആകയാൽ നിങ്ങളുടെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ അത് ശേഖരിച്ച് ഞങ്ങൾ അത് കിട്ടുന്ന പൈസക്ക് വിറ്റ് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതാണ് ആകയാൽ ഓരോ ഓരോ യൂണിറ്റും അതിന്റെ മുന്നിൽനിന്ന്കൊണ്ട് ഞങ്ങളുടെയൊപ്പം നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഓരോ ചാരിറ്റി പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഓരോ മേഖലയും നമ്മൾക്ക് ഇങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അതിനാൽ വേണ്ട ക്രമീകരണങ്ങൾ ഓരോരുത്തരും ചെയ്ത് തരും തരണം തരണം ചാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ ശംഷാസിന്റെ നേതൃത്തത്തിലായാലും സോഷ്യൽ സർവീസ് ട്രസ്സിന്റെ നേതൃത്തത്തിലായാലും അത് ഞങ്ങളിൽ ഈ ഓരോത്തർ ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും ആണ് നടത്തിവരുന്നത് അതിന് വേണ്ട ഹെൽപ്പ് നിങ്ങളെ ഓരോരുത്തരിൽനിന്നും ഉണ്ടാകണം എന്ത് സാധനമായിരുന്നാലും അത് ഞങ്ങൾ ശേഖരിക്കുന്നതാണ് ശേഖരിച്ച് മുന്നോട്ട് കൊണ്ട് വിറ്റ് കിട്ടുന്ന പൈസ ഞങ്ങൾ അത് ഇതിന് വേണ്ടിത്തന്നെ മുടക്കി ഓരോരുത്തരേയും ഹെൽപ്പ് ചെയ്യുന്നതാണ് പഠിക്കുന്നതിനായാലും ചികിത്സാ സഹായത്തിനും മറ്റുമായും ഈ പൈസ നമ്മൾ ഉപയോഗിക്കും അതിന് യാതൊരു സംശയവും വേണ്ട ആ കിട്ടുന്ന പൈസയിൽനിന്ന് ഒരു പൈസാപോലും മാറ്റിവെക്കാതെ ഞങ്ങൾ ഈ ഈ ചാരിറ്റി പ്രവർത്തനത്തിന് തന്നെ ഉപയോഗിക്കുന്നതാണ് നിങ്ങളുടെ ഓരോ ഹെൽപ്പും ഞങ്ങൾക്ക് അതിന് വേണ്ടി മാറ്റിവെക്കാം മാറ്റിവെക്കാം ആ ഒരു പ്രവർത്തനത്തിന്റെ ഓരോ ഭാഗമായി അത് നമ്മളോടൊത്ത് നിൽക്കുന്ന ഓരോരുത്തരേയും ഞങ്ങൾ ഞങ്ങൾ അതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് കഴിവില്ലാത്ത ഓരോ രോഗികളും സാമ്പത്തികമായി ബുദ്ധിമുട്ടി നിൽക്കുന്ന ഓരോ മനുഷ്യരും അതിന്റെ അതിന്റെ ആവശ്യാനുസരണം കണ്ട് നമ്മുക്ക് അവരെ സഹായിക്കാനുള്ള സന്മനസ്സ് ഉണ്ടാകുമാറാവണം നമ്മൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന എന്ത് സാധനമായിരുന്നാലും കുപ്പിയായാലും പാത്രമായാലും കുപ്പിയായാലും ഓരോ സാധനം നമുക്ക് അത് വിറ്റ് എടുത്ത് നല്ല ആക്രി വിലക്ക് വിറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ പൈസയാക്കി മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കും ഉപയോഗിച്ച് ഇല്ലാത്ത വേസ്റ്റ്കൾ വീട്ടിൽത്തന്നെ കുമിഞ്ഞ്കൂടി കിടക്കുന്നുണ്ട് അതെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് അതിനെ പൈസയാക്കി മാറ്റാനായിട്ട് സഹായിക്കും